ഹലോ ആ അതെ അതെ അതെ പറഞ്ഞോളൂ ആ ചോദിച്ചോളു ആ ഏതിൻ്റെ ആയിരുന്നു സ്ട്രൈറ്റനിംങ്ങ്ൻ്റെ ആണോ കെരാറ്റിൻ ആണോ സ്ട്രൈറ്റ്നിങ് ഒക്കെ അത് ആ പെർമനൻറ്റ് ചെയ്യാനാരിക്കും അല്ലേ അത് നമുക്ക് ഒരു രണ്ട് ദിവസത്തെ പ്രോസസ് ആണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു അ ആ പറഞ്ഞോളൂ ആ അത് ഫസ്റ്റ് അ ഫസ്റ്റ് വന്ന് കഴിയുമ്പോൾ കുറേ അത്യാവശ്യം ഫ്രീ വേണം എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ത്രീ ഫോർ ഹവേർസ് എടുക്കും ഇത് ചെയ്യാനായിട്ട് അത് മെൻലി ലെങ്ത് അനുസരിച്ചാണ് വരിക മാംമിൻ്റെ നല്ല ലെങ്ത്ള്ള മുടിയാണോ ഒക്കെ അ അത്രേ ഉള്ളു അപ്പോൾ ഒരു ത്രീ ഹവേർസ് ത്രീ ടു ഫോർ ഹവേർസ് ആണ് നമുക്ക് എന്തായാലും ആവശ്യം വരിക റേറ്റ് നമ്മൾ ഷോൾഡറിൽനിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ റേറ്റ് പറയുക ഒരു ഏകദേശം റേറ്റ് പറയാനാണെങ്കിൽ ഒരു എയ്റ്റ് ടു ടെൻ കെ വരും ആ അ വരും വരും ഞങ്ങളുടെ ഇവിടെ ലോറിയല്ല് പിന്നെ ഏതാ മെട്രിക്സ് അങ്ങനെത്തെ കുറച്ച് പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബ്രാൻഡ്സ് ആ ഒരു സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർ ഹൺഡ്രഡ് ആണിവിടെ പിന്നെ ബാലയാജ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് വേറെ റേറ്റ് ആണ് വരിക അതിപ്പോൾ ഒരു ഷോൾഡറിൻ്റെ ലെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് ബാലയാജോക്കെ ചെയ്യാനായിട്ടൊരു സെവൻ എയിറ്റ് വരും ബാലയജെന്ന് പറയുമ്പോൾ ഒരു സെവെൻറ്റി പെർസെൻ്റെജ് ഹെയറും അതിനകത്ത് കളറാകും അങ്ങനെയാണ് ആ ഹെയർ സ്ട്രൈറ്റ്നിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ആ നല്ല പോലെ മെയിൻടൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ ഇയറ് വരെ കിട്ടും ഓറ് എൽസ് സിക്സ് ടു എയിട്ട് മന്ത്സ് നമുക്ക് കിട്ടത്തൊള്ളു ആ നമുക്ക് നല്ല പോലെ മെയിൻടൈയ് ചെയ്യാണെങ്കിൽ മന്ത്ലി സ്പാ എടുത്താൽ നല്ലതായിരിക്കും ഈ കെരാട്ടിന് ഓർ സ്മൂത്തനിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതന്നെ സ്പാ നമുക്ക് ഇവിടെ നമ്മുടെ സലൂണിൽ വരുന്നുണ്ട് സൊ അത് എല്ലാ മാസവും രണ്ടും എടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഇത് വരെ എന്തായാലും കിട്ടും പിന്നെ അതുപോലെത്തന്നെ അതിൻ്റെ ഷാംപൂസും കണ്ടിഷ്ണറും യൂസ് ചെയ്യണം എന്നാലെ അത് എന്തായാലും നിൽക്കൂ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷാംപൂം കണ്ടിഷണറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കെമിക്കൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഈ കെരാട്ടിൻ്റെ ആ ക്രീമിനെ ഒക്കെ ഇതാക്കും സൊ അതിൻ്റെ തന്നെ കെരാട്ടിൻ്റെ തന്നെ ഷാംപൂം കണ്ടിഷണറും യൂസ് ആക്കണം അത് ഇവിടെ ഷവർ ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ബ്രാൻഡിൻ്റെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മാംമിന് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും പറ്റും പറ്റും കിട്ടും

ആ ആ

അത് കഴിഞ്ഞ് എന്തായാലും ബാക്ക് ത്രൂ നോർമൽ ഹെയർ ആയിരിക്കും വരിക ഇപ്പോൾ മാംമിൻ്റെ ഹെയർ എങ്ങനെയാ ഇല്ലില്ല അത് ഇങ്ങനെ വളർന്ന് വരുന്നതിന് അനുസരിച്ച് ഇങ്ങനെ റൂട്ടിന് നോർമൽ ഹെയറായിട്ട് ഹെയർ ആണെങ്കിൽ അത് റൂട്ടിൽനിന്ന് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഹെയറ് തന്നെയായിട്ടുള്ള വരിക നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വൺ ഇയറ് കഴിയുമ്പോൾ മാംമിന് ഇങ്ങനെ ലൈക്ക് റൂട്ടിൽനിന്ന് ഇങ്ങനെ ഫ്രഷി ആയിട്ടുള്ള ഹെയറ് വരികയാണ് സൊ വൃത്തികേടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് ടച്ച് ചെയ്യാം ലൈക്ക് കെരാട്ടിൻ റീ ടച്ച് ചെയ്യാം ആ നാളെ ആ ഒക്കെ ഒക്കെ ലെവൻ തേർട്ടിക്ക് ഞാൻ അപ്പോയ്മെൻറ്റ് എഴുതിയേക്കാം പേര് എന്തായിരുന്നു അല്ല ആ ഒക്കെ ആ ഒക്കെ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്തോ സ്മൂത്തനിങ് അ ആ ആ സ്മൂത്തനിങ് ഒക്കെ ഒക്കെ താങ്ക് യു